നമ്മുടെ ഇവിടെ അടുത്തുള്ള തിയേറ്ററെന്നു പറഞ്ഞാൽ ഒന്ന്

വിനായക മൾട്ടിപ്ലെക്സ് വിനായക തിയേറ്റർ പിന്നെ ഇത് മൾട്ടിപ്ലസ്സിൽ മൂന്ന് തിയേറ്റർ ഉണ്ട് പിന്നേ വിനായക തിയേറ്റർ പിന്നേ റെയിൽവേ റ്റേഷന്റെ അടുത്തുള്ള ദീപ്തി തിയേറ്റർ അതിൽ രണ്ട് സിനിമ ഉണ്ട് അവിടെ ഞങ്ങൾ ശനിയാഴ്ച

സിനിമക്കു പോകും സാധാരണ ഒരു കൂട്ടുകാരനുണ്ട് ആ കൂട്ടുകാരനെയും കൂട്ടിയിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം പുതിയ പുതിയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണാൻ പോകും പിന്നെ പിന്നെ മൾട്ടിപ്ലക്സിൽ ആണെങ്കിലും അവിടെ ആണെങ്കിലും നാട്ടിലുള്ളതായതുകൊണ്ട് അവിടെ ഏതാണ് സിനിമ മാറുന്നതിനനുസരിച്ച് ഒരോ ഒരു കൂട്ടുകാരെ കൂട്ടി സിനിമ കാണും അവിടെ മൾട്ടിപ്ലെക്സ് ആണേ ഇപ്പോൾ പഴയതുപോലെയല്ല ഏ സി ഏ സിയാണ് അതുകൊണ്ട് തിയേറ്ററിൽ ഇരുന്നുകഴിഞ്ഞാൽ ആ രണ്ട് രണ്ടര മണിക്കൂർ നമുക്ക് രണ്ട് മണിക്കൂർ നമുക്ക് സമയം പോകുന്നത് അറിയില്ല കൂട്ടുകാരോട് സിനിമ പോകുമ്പോൾ നല്ല എൻജോയ്മെൻറ് ആണ് കിട്ടാറ് അതു കണക്ക് നല്ല ഫാമിലി എൻജോയ്മെൻറ് ഫിലിം ഫിലിം വരുന്നതാണെങ്കിൽ കൂട്ടി പോകും അടുത്തതായതുകൊണ്ട് നമുക്ക് നടന്നിട്ടു തന്നെ പോയിട്ട് നടന്നിട്ടു തന്നെ വരാം അതുകൊണ്ട് അത് അവർക്ക് ഒരു പുതിയ നല്ല ഒരു എന്റർടൈൻമെന്റാണ് വല്ലപ്പോഴും ഒരിക്കൽ തിയേറ്ററിലെല്ലാം പോകുമ്പോൾ അവർക്ക് ഒരു സന്തോഷം ഉള്ള കാര്യം ആണ് നല്ല ഫാമിലി കോമഡി ഫിലിം വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അവരെയും കൂട്ടി കു പോ കുറച്ചുംകൂടിയും ഇത് ആയിട്ടുണ്ടെങ്കിൽ കൂ കൂട്ട് കൂട്ടുകാരെ ഒക്കെ കൂട്ടി നല്ല എൻജോയ്മെൻറ് ആയിട്ടും പോകാറുണ്ട് പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ ജോ ജോബ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാറില്ല

കഴിയുന്നതും നമ്മൾ എൻജോയ്മെൻറ് ആയിട്ട് തന്നെയാണ് സിനിമക്ക് പോകാറുള്ളത്

കൂട്ടുകാരൊത്ത് കൂട്ടുകാരന്റെ കൂടെ പോകുമ്പോൾ നമ്മൾ മനസ്സിനെ ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ നല്ല ഒരു ഫിലിം വന്നു പോകുമ്പോൾ നല്ലൊരു എൻജോയ്മെൻറ് ആണു കിട്ടാറുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് ഇതുവരെ

വിഷമവും വന്നിട്ടില്ല സി ഫിലിമിന് പോകുന്നതിൽ

അങ്ങനെ ഇതായിട്ട് പോകാറുണ്ട് പഴയ വിനാ വിനായകയിൽ ഇപ്പം എ സി ഒന്നും അല്ലാത്തതു കൊണ്ട് അവിടെ പോയികഴിഞ്ഞാൽ പഴയ ഒരു മൂഡ് കിട്ടുന്നില്ല ഇപ്പോൾ എല്ലാം മ മൾട്ടിപ്ലക്സ് മൾട്ടിപ്ലക്സ് ആയതുകൊണ്ട് അവിടെ ഇരുന്നു ഫിലിം കാണാനാണ് ഒന്നും കൂടിയും സുഖം പഴയ രണ്ട് തിയേറ്റർ ഉണ്ട് പഴയ മോഡൽ ഉള്ളത് അവിടെ അധികം ഇപ്പം പോകാറില്ലാ പിന്നെ വിനായക മൾട്ടികോ മൾട്ടിപ്ലക്സ്സിൽ ഈ എ സി ആകുമ്പോൾ നമുക്ക് വ്യക്തതയോടെ ഫിലിം കാണാൻവേണ്ടിയിട്ട് നമുക്ക് സുഖസുന്ദരമായി ഇരിക്കാൻ വേണ്ടി പറ്റാറുണ്ട് പിന്നെ ആ ദീപ്തി തിയേറ്റർ ദീപ്തി തിയേറ്റർ റെയിൽവേ ടേഷന്റെ അടുത്താണ് അവിടെ രണ്ടു ഉണ്ട് അവിടെ പുതിയ പുതിയ നല്ല റിലീസ് പടങ്ങൾ വരും അന്നേരം അത്യാവശ്യം ജോബിന് ജോബിന് തടസ്സം ഇല്ലത്ത ടൈം ഒക്കെ കൂട്ടുകാരൊക്കെ പുറത്തുനിന്ന് വന്നുകഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കും ആ രണ്ടു മണിക്കൂറും നമുക്ക് സമയം പോകുന്നത് അറിയില്ല അങ്ങനെയാണ് പിന്നെ എതു ഏത് പടം വന്നു കഴിഞ്ഞാലും ഫ ഫസ്റ്റ് ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ ആ ഫിലിം കൂട്ടുകാരൻ വന്നിരുന്നു അവിടെ നമുക്ക് പോകാം അല്ലെങ്കിൽ ഫാമിലി ഫാമിലിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഇത് ഫിലിം കാണാൻ പോകാറുണ്ട് ഇപ്പോൾ മുമ്പത്തെപോലെ ഒരു പടം വന്നുകഴിഞ്ഞാൽ അധികൊന്നും ഓടാറില്ല എന്നാലും ഒന്ന് രണ്ട് പടങ്ങളൾ കൂടുതൽ ടൈം കൂടുതൽ ദിവസം ഓടും അങ്ങനെയാണ് ഇപ്പോൾ അധികം കോമഡി പടമാണ് അങ്ങനെ കോമഡി പടം കാണാൻവേണ്ടിട്ടും പോകും അടുത്തല്ല തിയേറ്റർ മൂന്ന് അഞ്ച് അഞ്ച് തിയേറ്റർ അടുത്തുണ്ട് അഞ്ച് അഞ്ച് തിയേറ്റർ അടുത്തുതന്നെ ഉണ്ട് പിന്നെ രണ്ടു തിയേറ്റർ പോയി ഇപ്പം അതാണ് ഉള്ളത് എന്നാലും ഇടയ്ക്ക് ആൾ ഫുൾ ഉണ്ടാകും ഇടയ്ക്ക് ഒന്നുമില്ല ഒന്നോരണ്ടോ ആൾക്കാർ മാത്രം ഉണ്ടാകും പടം ഇടക്ക് മൂന്ന് ഒരേ പടം തന്നെ രണ്ട് തിയേറ്ററിൽ കളിക്കുമ്പം അടുത്തു പോയി കാണും ഇടയ്ക്ക്

പടം

കാണാൻ പോകും കൂട്ടുകാരൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഫിലിം കാണാൻ പോകാൻ വേണ്ടിയിട്ട് വിളിക്കും വിളിച്ചാൽ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോകും പിന്നെ സി ഫിലിമും കണ്ടുവന്ന് ഫുഡെല്ലാം കഴിക്കും അങ്ങനെയാണ് ഇത് പിന്നെവേറെ പണ്ട് ഇതു ഇപ്പോൾ മുൻപത്തെ ആണെങ്കിൽ ഒരു വലിയ തിയേറ്ററാണ് ഇപ്പം തിയേറ്ററൊക്കെ ഒരു തിയേറ്റർ രണ്ട് രണ്ട് ചെറുതാക്കിയിട്ട് രണ്ട് രണ്ട് രണ്ട് ഷോവാണ് നടക്കുന്നത് ഒരേ തിയേറ്ററിൽ ഇപ്പം അധികം ആളും ഉണ്ടാകില്ല അധികം ഒച്ചയും ബഹളവും ഒന്നുമില്ല മുൻപെല്ലാം ഒരു പടം കാണാനിരുന്നിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ അടുത്തുണ്ടെങ്കിൽ അത് നമുക്ക് സൗണ്ടെല്ലാം ആയിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റാറില്ല ഇപ്പം അതല്ല ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആൾ കുറവ് മാക്സിമം നൂറോ നൂറ്റൻപത് ഇരുനൂറിൻറെ ആ ഒരു ലെവലിൽ ആ എത്തിയിട്ടാണ് ഉള്ളത് അങ്ങനെയാണ് കഴിയുന്നതും ഒരു ഓരോ പടവും ഒഴിവാകാതെ തന്നെ കാണാറുണ്ട് അതു നമ്മളത് നമുക്ക് കോമഡി ഇഷ്ടപെട്ടാൽ മറ്റേആൾക്ക് സീരിയസ് ക്യാര ക്യാരക്ടർ ആയിരിക്കും ഇഷ്ടപെടുന്നത് അപ്പോൾ ഒരു തിയേറ്ററിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റേ ഓരോധ്യേ ഒരുപടത്തിന് പോയിട്ടുണ്ടെങ്കിൽ മറ്റേപടത്തിന് ഞങ്ങൾ ആണക്കിന് കൂട്ടുകാരൻ പറയുന്ന പോലെ ഞാനുംപോകും പോകേണ്ടിവരും അങ്ങനെയാണ് ഫിലിമിന്റെ ഇത് കഴിയുന്നതൊന്നും മുടക്കാറില്ലാ പോകും തിയേറ്റ ഫിലിമൊന്നും കാണാതെപോകാറില്ല എല്ലാ ഫിലിമും കാണും കണ്ട് ഫിലിം ആസ്വദിക്കും കൂട്ടുകരന്റെ അടുത്തുപോയി വളരെ സ്വസ്ഥമായി ഇരുന്നിട്ട് സിനിമ കാണും അങ്ങനെയാണ് പിന്നെ ടൗണിൽ എത്തികഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള തിയേറ്ററിൽ പോകും അവിടെയാണെങ്കിൽ ആരെങ്ങിലാണെങ്കിലും ഒരു ആഴ്ചയിൽ ഒരുപടം എന്തായാലും കാണും ഇന്ന് വൈകുന്നേ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച വൈകുന്നേരം ഇപ്പം പോകും രാത്രിയിലുള്ള ഷോക്ക് പോയിട്ട് വരും

എല്ല ഫിലിമും കാണുകയും ചെയ്യും ഇതുവരേ കാരണം ഇതുവരെ അതൊന്നും മുടക്കം വരുത്തി വെച്ചിട്ടില്ലാ ഏകദേശം പടം എല്ലാം കൂട്ടുകാരനെ ആണ് ഒന്നിച്ചിരുന്നു കാടലു കൂട്ടുകാരന്റെ കൂടെ തന്നെ ആദ്യം പടത്തിന് പോകൽ വീട്ടുകാർക്ക് ഉള്ള നല്ല ഫാമിലി പടം എൻ്റൊരു ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടുകാരെയും കൊണ്ടുപോകും അവർക്കും ഒരു എൻജോയ്മെന്റ് കൊടുക്കും കൂട്ടുകാരും കൊടുക്കും പിന്നാരെയും വളരെ നല്ല രീതിയിൽ തന്നെ ഇത് കൂട്ടുകാരുമായിട്ട് എൻജോയ്മെൻറ് ചെയ്യും വിനായക ശ്രീ വിനായക വിനായക മൾട്ടിപ്ലക്സ് ഇതാണ് വീട്ടിന്റെ അടുത്തുള്ള തിയേറ്ററുകൾ അടുത്തുള്ള തിയറ്ററുകളൾ പിന്നെ റെയിൽവേ സ്റ്റേഷനടുത്ത് ദീപ്തി തിയേറ്റർ ഇതാണ് കാഞ്ഞങ്ങാട്

ആ ഈ ഞങ്ങൾ ഫിലിമിന് പോകാറ് കൂട്ടുകാരോടൊത്ത് പോകുമ്പോൾ നല്ലൊരു ഹാപ്പിയാണ് ഫിലിമിന് സന്തോഷത്തോടെ എപ്പോഴും പോകും എൻജോയ്മെന്റ് ചെയും അതുകൊണ്ടു തന്നെ ഫാമിലിയായിട്ട് പോകുമ്പോഴും നല്ലൊരു എൻജോയ്മെന്റ് കിട്ടാറുണ്ട് ഇതുവരെ അതിനൊരു മുടക്കവും വന്നിട്ടില്ലാ ഇനിയും അങ്ങനെ തന്നെ മുൻപോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നു